എനിക്ക് വളരെ നന്നായിട്ട് മോരു കറി ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയോട് പറയുകയും പുള്ളിക്കാരി മോരുകറി വെക്കാൻ നന്നായിട്ട് പഠിപ്പിക്കാമെന്ന് പറയുകയും ചെയ്തു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുകയും ചേച്ചി ഒരു പൈനാപ്പിള് വച്ചിട്ടാണ് മോരു മോരു കാച്ചാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പമൊരു പൈനാപ്പിളിൻ്റെ ഹാഫ് കട്ട് ചെയ്തെടുത്തു അത് ചെറിയ കഷ്ണങ്ങളായി നുറുക്കി ഒരു പാത്രത്തിൽ വെച്ച് പൈനാപ്പിള് വെള്ളവും ചേർത്ത് പച്ചമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ഇട്ട് നന്നായിട്ട് വേവിച്ചു എന്നിട്ട് ഒരു തേങ്ങയുടെ ഒരു മുറിയെടുത്ത് ചിരവി അതിൽ ജീരകവും ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു അത് മാറ്റി വെച്ചു എന്നിട്ട് ഈ പൈനാപ്പിളിൻ്റെ വെള്ളം പൈനാപ്പിള് വേവിച്ച് അത് വറ്റിയപ്പോഴേക്കും ഈ മോരു ഈ അരപ്പ് അതിലേക്ക് ചേർക്കുകയും ഇത് അൽപ്പം ചൂടായി തിളച്ച് വന്നപ്പോഴേക്കും മോരു അതിലേക്ക് ഒഴിച്ചു അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തു എന്നിട്ട് അവസാനം കടുക് വറക്കുന്നതിന് വേണ്ടീട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു പിന്നെ അതിലേക്ക് ഉലുവ ഇട്ട് പൊട്ടിച്ചു പിന്നെ കളറ് വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ചു മഞ്ഞൾപ്പൊടി ചേർത്തു എന്നിട്ട് ആ മോരു കറിയിലേക്ക് ഒഴിച്ചു അങ്ങനെ ഞാൻ നല്ല അടിപൊളി മോരുകറി ഉണ്ടാക്കാൻ പഠിച്ചു